യാത്രകൾ ഒരുപാട് ചെയ്യാറുണ്ട് അതുകൊണ്ടുതന്നെ അതിലുള്ള ഓരോ മെമ്മറിസും നമ്മൾ കീപ്പ് ചെയ്തു വയ്ക്കാറുള്ളത് ഓരോ പിക്ചേർസിലൂടെയാണ് അതുകൊണ്ടുതന്നെ ഓരോ പിക്ചേർസും ഓരോ സ്റ്റോറി പറയുന്നതായിരിക്കും അതുകൊണ്ട് ഓരോ യാത്രയിലുണ്ടാവുന്ന ഇമേജുകളെയും നമ്മൾ സ്റ്റോർ ചെയ്തു വയ്ക്കാറുണ്ട് അതേപോലെതന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ കണ്ണിനെ ഇഷ്ടപ്പെടുത്തിയ ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനേ വണ്ടിയിൽ പോകുമ്പോൾ ചുറ്റും നല്ല മരങ്ങൾ ആ മരങ്ങള് പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു അത് കൂടാതെ ആ ഒരു ക്ലൈമറ്റിലുള്ള ആ ഒരു യാത്ര എന്ന് പറയുന്നത് എപ്പോഴും ഓർമകളിൽത്തന്നെ ഉണ്ടാവും ട്രെക്കിങ്ങിനിടയിലുള്ള കാര്യം പറഞ്ഞാൽ ട്രെക്കിങ്ങ് എപ്പോഴും ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഓരോന്നും കയറിക്കയറി പോകാനും എല്ലാവരുടെയും കൂടെ ആസ്വദിച്ച് പോകാനും ഇപ്പോഴും അതൊരു ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യംതന്നെ ആയിരിക്കും അതിലുണ്ടാവുന്ന ഓരോ പിക്ചേർസും നമുക്ക് ഓരോ മെമ്മറീസ് തരും ഓരോ കാഴ്ചകൾക്കും ഓരോ പിക്ചേർസ് ഉണ്ടായിരിക്കും അതിൻ്റെ കഥകള് പറയാൻ വേണ്ടിയിട്ട്